നമ്മുടെ മതത്തെ കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ സ്കൂൾ പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് അങ്ങനെയും വരാം അതുകൂടാതെ ഇപ്പം സഭ ഒരുപാട് വള വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതു നമ്മൾ അതു മതപരമായിട്ട് നമ്മളത് കാണുന്നുണ്ട് സൺഡേ സ്കൂളിലാണെങ്കിലും നമ്മൾ സഭയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സഭയിലുള്ള പുതിയ വളർച്ച സഭയുടെ വളർച്ചയും കാര്യങ്ങളും കുട്ടികൾക്കു പറഞ്ഞുകൊടുക്കുന്നതും കുട്ടിളെ മനസ്സിലാക്കുന്നതും സഭയുടെ ആധികാരിക വളർച്ചയെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അതു നമ്മുടെ കത്തോലിക്ക സഭയെ കൂടുതൽ വളരാനും ഓ ഒത്തൊരുമയോടുകൂടി പോകാനും ഒക്കെ നമുക്കു സഹായകമാണ് ഇന്നു വളർന്നു വരുന്ന തലമുറയ്ക്ക് നമുക്ക് ഏറ്റവും നമ്മുടെ മതത്തെക്കുറിച്ച് പറയുന്ന കൂടുതൽ വളർന്നുവരുന്ന കാര്യങ്ങൾ സഭയുടെ വളർച്ചയെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്കു സാധിക്കും